മലയാളത്തിലെ ഭാഷാഭേദങ്ങൾ പഠിക്കുന്നതിലേറെ ഉപയോഗിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് ഓരോ പ്രദേശത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഓരോ ഭാഷയാണ് നമ്മൾ എപ്പോഴും തന്നെ സംസാരിക്കാറുള്ളത് അതായത് കേരളത്തെ സംബന്ധിച്ചെടുത്തോളം കാസർഗോഡ് കണ്ണൂർ എന്നിങ്ങനെയുള്ള പതിനാല് ജില്ലകൾ നിലനിൽക്കുമ്പോൾ ആ പതിനാല് ജില്ലകളും വ്യത്യസ്ഥമായ ഭാഷകളായിരിക്കും ഉണ്ടായിരിക്കുന്നത് അതായത് ഭാഷാഭേദങ്ങൾ നിലവിലുണ്ട് അത് അനുസരിച്ചു നമ്മുടെ ജീവിത രീതിയും ജീവിതശൈലിയും നാം എവിടെയാണ് താമസിക്കുന്നത് എന്നല്ലാതെ നമ്മൾ വസിക്കുന്ന എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഉള്ള ഭാഷാഭേദങ്ങൾ ഉണ്ടായിരിക്കും അതായത് ഉദാഹരണം ഇടുക്കിയിലുള്ളവർ വരൂ ഇവിടെ ഒന്നിങ്ങ് വന്നേ ഇവിടെ ഇരിക്കുക എന്ന് പറയുമ്പോൾ കാസർഗോഡും കണ്ണൂരുമുള്ളവർ ഇജ്ജ് അവിടെ ഇരുന്നാണ് അങ്ങനെ ഉള്ള ഭാഷാഭേദങ്ങളും മറ്റും ഉപയോഗിക്കുന്നു ഓരോ പ്രദേശത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രാദേശിക ഭാഷയ്ക്കും മറ്റും നിരവധി മാറ്റങ്ങളും മറ്റും ഉണ്ടാകുന്നു കേരളത്തിലെ വടക്കേ അറ്റവും തെക്കേ അറ്റവും എല്ലാ സഞ്ചരിച്ചാൽ പലതരം മലയാളവും മറ്റും നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് അത്രത്തോളം ഇന്ന് എന്താ എന്ത് ആണോ ആണി അങ്ങനെയുള്ള നിരവധി വരൂല ബെരൂല വരില്ല വരത്തില്ല എന്നിങ്ങനെ തരത്തിലുള്ള ഒരു വാക്കിനെ തന്നെ വരൂ എന്നുള്ളതിന് തന്നെ വരത്തില്ല വരൂല വെരില്യ ബെരൂല എന്നിങ്ങനെയുള്ള ധാരാളം ഭേദങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പഠിക്കുന്നതിലേറെ തന്നെ അതായത് വാമൊഴിയായി സംസാരിക്കുന്നതിന് പഠിക്കുന്നതിലും ഏറെ തന്നെ നമുക്ക് എന്താ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് അതായത് ഇവിടെയുള്ള അത് നമ്മുടെ പ്രാദേശിക അടിസ്ഥാന പ്രാദേശികതയെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും നമ്മുടെ ഭാഷാഭേദങ്ങൾ നില നിൽക്കുന്നതെന്ന് പറയാൻ സാധിക്കും